മലയാള ഭാഷ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ ഒത്തിരിയധികം സംരംഭം ഇത് പ്രോത്സാഹിപ്പിക്കാൻ ഒത്തിരി ശ്രമങ്ങള് നടക്കുന്നുണ്ട് ഒഫിഷ്യൽ ലാങ്ങ്വേജ് മലയാളം ആക്കുകയും എല്ലാം അതായത് ഒഫിഷ്യൽ കറസ്പോണ്ടൻസ് എല്ലാം മലയാളത്തിൽ നടത്തണമെന്ന് ഗവൺമെൻറ്റ് ഉത്തരവിറക്കി അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മലയാളം നമ്മുടെ മാതൃഭാഷയായതുകൊണ്ട് കുട്ടികള് മലയാളത്തിൽ വായിക്കാനും മലയാളത്തിൽ പഠിപ്പിക്കാനും മലയാളം ന്യൂസ് പേപ്പറ് വായിക്കാനും ബുക്ക് വായിക്കാനുമായിട്ടവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുൻപായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ശ്രമങ്ങളിൽ ആൾക്കാര് നല്ല രീതിയിൽ തന്നെ ഭാഗഭാക്കാവുന്നുണ്ട് അവര് മലയാളം എപ്പഴും ശ്രദ്ധിച്ചാൽ കൂടുതലും മാതൃഭാഷ ആയ മലയാളം പേപ്പറ് വായിക്കാനും മലയാളത്തിൽ സംസാരിക്കാനും ഒക്കെ ആൾക്കാരൊത്തിരിയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നുള്ളത് വളരെ നമ്മൾ അധികവും സ്വീകാര്യമായിട്ടുള്ള അല്ലേൽ വളരെയധികം ആശ്വാസം അർപ്പിക്കുന്ന ഒരു കാര്യമാണ്